പുതിയ തലമുറയോട് നിങ്ങൾ കൃഷി കൃഷികൾ ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിലുള്ള വിഷാംശങ്ങൾ ഇല്ലാത്ത നല്ല രീതിയിലുള്ള പച്ചക്കറികൾ കൾ കഴിക്കാവുന്നതാണ് അതുപോലെത്തന്നെ അടുത്ത തലമുറയും നിങ്ങളീ പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കേരളം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു കൃഷി കൃഷി ചെയ്യുകയും നെൽകൃഷികൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നല്ല കൃഷിയിലൂടെ നമ്മൾക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ നെൽകൃഷിയിലൂടെ നല്ല ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാവുന്നതാണ് ഈ കൃഷി കൊണ്ട് നമ്മൾക്ക് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ കൃഷി ചെയ്യുമ്പോൾ നമ്മളുടെ നല്ല രീതിയിലുള്ള നെല്ലുകൾ നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുകയും നല്ല രീതിയിൽ നമ്മുടെ രോഗങ്ങളിൽനിന്ന് നമുക്ക് മുക്തി മുക്തി നേടുകയും ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ അടുത്ത തലമുറക്കും ഇതേ നിർദ്ദേശം തന്നെ കൊടുക്കുകയും കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നോടുള്ള എല്ലാ തലമുറയിലും നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും ആ കൃഷികൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എല്ലാരും മുന്നോട്ട് വരിക അതുകൊണ്ട് ഈ നിർദ്ദേശം നിങ്ങൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം എന്ന് ഞാൻ ഇതോടെ പറഞ്ഞുകഴിയുന്നു